നമ്മുടെ പ്രദേശത്തേറ്റവും കൂടുതലാൾക്കാർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഡേറ്റ പ്ലാനെന്നു പറയുന്നത് ജിയോയുടേതായിരുന്നു പക്ഷെ ഈ ഈയിടെയായിട്ട് ജിയോയുടെ ഡേറ്റ പ്ലാനുകളുടെയും ഫോൺ കോളുകളുടെയുമൊക്കെ വില കൂട്ടിയതു കൊണ്ട് ജിയോയിൽ നിന്നും ഭൂരിഭാഗം ഒരുപാട് പേര് ഒരുപാട് പേര് ജിയോയിൽ നിന്നു മാറുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ബി എസ് എന്നിലേക്കാണെന്നു തോന്നുന്നു ഇപ്പോൾ ആൾക്കാർ മാറിയത് ബി എസ് എൻ എല്ലിൻ്റെ ഡേറ്റാകളുടെ ഡേറ്റ പ്ലാനുകളുടെ വില ജിയോയുമായിട്ടു താരതമ്യം ചെയ്യുമ്പോൾ വളരെ വളരെ വളരെ കുറവാണ് അതുകൊണ്ട് നല്ലൊരു ജനസംഖ്യ തന്നെ ബി എസ് എന്നിലേക്ക് മാറിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് സാധാരണ ആൾക്കാർക്ക് സാധാരണ ആൾക്കാർക്ക് വഹിക്കാവുന്ന ഒരു തുകയാണ് ബി എസ് എൻ എല്ലിൻ്റെ ഡേറ്റ പ്ലാനുകൾക്ക് ഇട്ടേൽക്ക് ഇട്ടേക്കുന്നത് അതു കൊണ്ട് സാധാരണയായി ബി എസ് എൻ എൽ സ്വാഭ സ്വാഭാവികമായിട്ടും ബി എസ് എൻ എല്ലിലേക്ക് തന്നെ ആൾക്കാർ പോകുന്നൊരു അവസ്ഥയാണിപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രദേശത്തെ ആൾക്കാരേറ്റവും കൂടുതലുപയോഗിക്കുന്നതിപ്പോൾ തോന്നുന്നത് പൊതുവെ ബി എസ് എൻ എല്ലിന്നിവിടൊരു റേയ്ഞ്ചിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെയും അതു വക വെക്കാതെ ബി എസ് എൻ എല്ലിലേക്കു മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോളുണ്ടായിരി ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും അദ്ധ്വാനിച്ച് അന്നന്നത്തെ ജീവിതത്തിൽ അന്നന്നത്തെ ചിലവിനു വേണ്ടി മാത്രം അദ്ധ്വാനിക്കുന്നൊരു മനുഷ്യ വിഭാഗമാണ് ഇവിടെ ഉള്ളത് അതു കാരണം ഈ ജീവയുടെ ഭാരിച്ച ചിലവുള്ള ഭാരിച്ച രൂപയുള്ള ഈ ഡേറ്റ പ്ലാനുകളൊന്നും എടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇവിടെയുള്ള മനുഷ്യർക്കില്ല അതു കാരണം ആ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളാണിവിടെ താമസിക്കുന്നത് അതു കൊണ്ടെൻ്റഭിപ്രായത്തിലിപ്പോൾ പൊതുവെ ജിയോയിൽ ആയിരുന്ന ഒരുപാട് ഉപഭോക്താക്കൾ ബി എസ് എൻ എല്ലിലേക്ക് മാറി എന്നു തന്നെയാണെനിക്ക് തോന്നുന്നത് എൻ്റെ കുടുംബത്തിലും നാലംഗങ്ങളായിരുന്നു ഫോണുപയോഗിച്ചു കൊണ്ടിരുന്നത് രണ്ട് ജിയോ മൂന്നു ജിയോക്കാരും ഒരു ബി എസ് എന്നിലേക്കാരുമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ജിയോയുടെ വില കയറ്റം കൂടിയതു വെക്കാൻ കൂടിയതോടു കൂടി ബി എസ് എന്നിലേക്കു മാറുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ബി എസ് എൻ എല്ലിൽ വീടിൻ്റവിടെ റേയ്ഞ്ച് കുറവാണെങ്കിൽ തന്നെയും ബി എസ് എന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കുന്നൊരു അവസ്ഥ ഉണ്ട് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ബി എസ് എന്നിലേക്ക് എല്ലാവരും തിരിയുന്നത് ആണ് ഇപ്പോൾ നമ്മൾ കണ്ട് വരുന്നത് ഏറ്റവും കൂടുതൽ ഞങ്ങളുപയോഗിക്കുന്ന പ്ലാനെന്നു പറയുന്നത് ബി എസ് എൻ എല്ലിൻ്റെ നൂറ് രൂപയ്ക്ക് പതിനെട്ട് ദിവസം ആ ഒരു ജി ബി വെച്ച് കിട്ടുന്നൊരു പ്ലാനാണ് ഈ പ്ലാൻ വളരെ ഉപകാരപ്രദമായും എല്ലാവർക്കും വഹിക്കാവുന്നതുമായൊരു പ്ലാനാണ് അതു കൊണ്ടു തന്നെ എൻ്റെ കുടുംബം ഇപ്പോൾ ബി എസ് എന്നിലാണ് ഉപയോഗിക്കും ബി എസ് എൻ എൽൻ്റെ ഡേറ്റ പ്ലാനാണിപ്പോൾ ഉപയോഗിക്കുന്നത് പൊതുവെ പൊതുവെ ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ബി എസ് എന്നൽ തന്നെയാണ് എല്ലാ ആൾക്കാരും ബി എസ് ൻ എൽൻ്റെ ഡേറ്റ തന്നെയാണുപയോഗിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ജിയോടെ ഡേറ്റ വളരെ ഫാസ്റ്റും വേഗത്തിലുള്ളതും സൗകര്യപ്രദവുമായിരുന്നു പക്ഷെ അവരുടെ വിലക്കയറ്റം മൂലം എല്ലാവരും അതിൽ നിന്ന് മാറി ബി എസ് എൻ എൽലേക്ക് തിരിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്